ആ ആ മാം എവിടെയായിരുന്നു എവിടുന്ന് വിളിക്കുന്നതായിരുന്നു ആണല്ലേ മാമിന് മാമിന് എന്തായിരുന്നു ആ ആ അസുഖം എന്തായിരുന്നു നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ ആണ് നമുക്ക് അതായത് പ്രൈവറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് കോഴിക്കോട് മിംസ് ഉണ്ട് നമുക്ക് വയനാട് മേപ്പാടിയിൽ ഒരു മിംസ് ഉണ്ട് പിന്നെ നിങ്ങളിപ്പം വയനാട്ടിൽ വയനാട് ആയതുകൊണ്ടും പിന്നെ മാനന്തവാടി നമുക്കിപ്പം മെഡിക്കൽ കോളേജ് ആക്കിയിട്ടുണ്ട് അപ്പം അവിടെ എല്ലാ സൗകര്യം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്

ഇത് ഗവൺമെന്റ് ആണോ ഗവൺമെന്റ് ആണോ പ്രൈവറ്റ് ആയിട്ടാണോ നോക്കുന്നത് പ്രൈവറ്റ് മതി അല്ലേ പ്രൈവറ്റ് ആണെങ്കിൽ ഇപ്പം മാനന്തവാടിയിൽ ആണെങ്കിൽ സെന്റ് ജോസഫ് ഉണ്ട് പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ മാനന്തവാടിയിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലേ ഉള്ളൂ ആ ഡോക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പിന്നെ അതേപോലെ ഓപ്പറേഷൻ്റെ അങ്ങനെ എല്ലാം നോക്കിയാൽ സെന്റ് ജോസഫൈലാണ് നല്ലത് പിന്നെ മേപ്പാടിയിലാണ് നമുക്ക് കൂടുതൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് അതായത് ഇപ്പം നമുക്ക് സെന്റ് ജോസഫിൽ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ അതായത് ഇവരുടെ കയ്യിൽ അങ്ങനെ എന്താണ് പറയുക സാധനങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ റഫർ ചെയ്യുക അപ്പം നമ്മൾ ആദ്യമേ അവിടെ നിൽക്കുന്നതായിരിക്കും ബൈ സ്റ്റാൻഡ് ആയിട്ട് അതായത് ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതായത് ഐ സി യുവിലായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഐ സി യുൻ്റെ പുറത്തേ നമ്മളെ നിർത്തുള്ളൂ അകത്തേക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളായിട്ട് അഡ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നിൽക്കാം പിന്നെ അതായത് കാലിന് പൊട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും രണ്ട് പേർ വേണമല്ലോ അങ്ങനെ ആണെങ്കിൽ രണ്ട് പേർക്ക് നിൽക്കാം ആ എന്തായിരുന്നു എന്തായിരുന്നു പറ്റിയത് ആ അതിൽ കൂടുതലും മേപ്പാട് മേപ്പാട് നിന്ന് അത് പിന്നെ അങ്ങോട്ടേക്ക് റഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ മാം വിളിച്ചാൽ മതി എന്നെ ഒന്നുകൂടെ നിങ്ങൾ വരുന്ന ദിവസം എന്നാൽ ഞങ്ങൾ ആ ഓക്കെ ശരി ശരി മാം